എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പുതുക്കി പണിയുന്നതിനോട് അനുബന്ധിച്ച് അവിടൊരു വിഗ്രഹത്തിൻ്റെ ഒരു രൂപം കൊടുക്കുകയുണ്ടായി വിഗ്രഹം അല്ല ശിവൻ്റെ ചന്ദ്രക്കല ശിവൻ്റെ നെറ്റിയിൽ അല്ല തൃക്കണ്ണാണോ ചന്ദ്രക്കലയാണോ അങ്ങെനെയെന്തോ ഒന്ന് കൊടുക്കുകയുണ്ടായി അതെൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുത്തത് നല്ലൊരു അത് പണിയിപ്പിക്കുകയാണ് ചെയ്തത് നല്ല ഒരു ഉള്ളിലൊരു നല്ലൊരാഗ്രഹം ഉണ്ടായിട്ടാണ് അങ്ങനെ കൊടുത്തത് ഞങ്ങൾ കുറേ നാളുകളിരുന്ന് ആലോചിച്ചാണ് അങ്ങനെയൊരു വിഗ്രഹം കൊടുക്കുകയുണ്ടായത് കൊടുത്തതിൽ പിന്നെ നല്ലൊരു ആശ്വാസവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതു ഞങ്ങളുടെയൊരു വിശ്വാസമായിരിക്കാം അതറിയില്ല പിന്നീട് അവിടുത്തെ അമ്പലത്തിലെ അമ്പലത്തിലായാലും വെറുതെ പോയാലും ഉത്സവത്തിന് പോയാലും അതു കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു ആശ്വാസം സന്തോഷവുമൊക്കെ ലഭിക്കുന്നുണ്ട് നല്ലൊരനുഭവം